വിദ്യാർഥികൾക്ക് പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ നമ്മുടെ സർക്കാർ നൽകുന്നുണ്ട് സ്കോളർഷിപ്പുകൾ എന്നു പറയുമ്പോൾ രന് മൂന്ന് തരത്തിലുണ്ട് ആദ്യമായി നമ്മൾ സ്കോളർഷിപ്പ് നൽകുന്നത് പഠനത്തിൽ ഉന്നത രീതിയിൽ നിൽക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് അതിന് പുറമെ പിന്നോക്കം നിൽക്കുന്ന സമുദായത്തിലുള്ള കുട്ടികൾ അതായത് എസ് സി എസ് ടി ഒ ബി സി ഒ ഇ സി എന്നിവർക്കും സർക്കാർ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് ഇതിനൊക്കെ പുറമെ പെൺകുട്ടികൾക്ക് പ്രത്യേക പദ്ധതികളുമുണ്ട് അതായത് നമ്മുടെ സർക്കാർ ഒരു കുടുംബത്തിൽ ഒന്നോ രണ്ടോ പെൺകുട്ടികൾ പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബം അച്ഛനും അമ്മയ്ക്കും പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിദ്യാഭ്യാസം പൂർണ്ണമായും ഫ്രീ ആയി നൽകുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ സർക്കാർ ശ്രമിക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പിൻ്റെ ഭാഗമായി അവരുടെ ചിലവിനുള്ള പുസ്തകങ്ങളും പഠിക്കാനാവശ്യമായ ബാഗുകളും ബുക്കുകളും ഒക്കെ ഫ്രീ ആയി നൽകുവാൻ വേണ്ടി നമ്മുടെ സർക്കാർ ശ്രമിക്കുന്നുണ്ട്